ബി മൈ ഐസാപ്പെന്ന് പറയുന്ന അത് നമ്മൾ പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കണം അത് ഏറ്റവും പ്രയോജനപ്പെടുന്നതെന്ന് വെച്ചാൽ കൂടുതലും പ്രായമായവർക്കും പിന്നേക്കെ അത്പോലെ കാഴ്ചക്കൊക്കെ വൈകല്യമുള്ളവർക്ക് കൈക്ക് ഒത്തിരി വലിയ സ്വാധീനം ഒന്നുമില്ലാത്തവർക്കൊക്കെ ഒത്തിരി പ്രയോജനകരമായ ഒരു കാര്യവാണ് ബി മൈ ഐസാപ്പെന്ന് പറയുന്നത് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ അവരിപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും പ്രായമുള്ളവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലഘട്ടമാണ് മക്കൾചിലപ്പം വിദൂര സ്ഥലങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ എന്തും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളീ ഈ ഒരു ജീവിതം നടത്തുന്നത് തന്നെ അതുപോലെ തന്നെ മക്കൾ ഒന്നുമില്ലാതെ ഈ പ്രായമുള്ളവർ തന്നെ ജീവിക്കും ചിലപ്പം എല്ലാവർക്കും തന്നെ ആയ ഇപ്പം വീട്ടിൽ വേലക്കാരി വേണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആവശ്യം അവരുടെ എന്ത് കാര്യങ്ങളും മവ അവർ പെട്ടന്നൊരു കാര്യം ചെയ്ത റെക്കോർഡ് ചെയ്ത് ഇടണമെങ്കിലോ ഒക്കെ എഴുതാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് അല്ലേ കാഴ്ചക്ക് വൈകല്യമുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രയോജനകരമായ കാര്യമാണ് ഇപ്പോൾ ഏറ്റോം അത്യാവശ്യപ്പെട്ട് മക്കളെ തന്നെ വിളിക്കണമെന്നില്ല മക്കളെ തന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് മീൻ വേടിക്കണമെങ്കിലോ അല്ലെ വീട്ടിലെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സാധനം വേണം വേഗം വേഗം വേണമെന്നുള്ളതായിരിക്കാം അവർക്ക് വേണ്ടത് അപ്പോൾ അവരെന്നാടുക്കും പെട്ടന്ന് ഈ ആപ്പിലൂടെ കയറിക്കഴിഞ്ഞ് ടൈപ്പ് ചെയ്യാതെ വോയിസ് ചെയ്യാൻ പറ്റും വോയിസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും ആ ബി മൈ ഐസ് ആപ്പെന്നുള്ള ആ ഒരു സംവിധായകം അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പം ആശുപത്രി ഹോസ്പിറ്റലി പോകാനായിരിക്കാം ഒരു ടാക്സി വിളിക്കാനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അവർ അവരുടെ ദൈനം ദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗപ്രദം തന്നെയാണ് ഈ ഒരു ആപ്പ് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടുത്ത് ഇപ്പോൾ എല്ലാവരും ഒത്തിരി തിരക്കിലും കാര്യങ്ങളിലും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചിലപ്പം ഓരോരുത്തർക്കും അവരുടെതായ പേഴ്സണൽ കാര്യങ്ങളും ആവശ്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രായമായവരെ നോക്കാനോ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പോലും പറ്റത്തില്ല അപ്പോൾ ഈ അയൽവക്കക്കാർക്ക് പറ്റോ ഒരിക്കലുവില്ല അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ജോലിയും തിരക്കുകളുമായും നീങ്ങി പോകുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയോജനകരമായൊരു കാര്യം തന്നെയാണ് ഈയൊരു ആപ്പ് അല്ലെ ഈ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യം നോക്കിക്കോളുവല്ലോ എന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ കാലഘട്ടക്കാർ കാലഘട്ടത്തിൽ പ്രായമായവർ അല്ലെങ്കിൽ വൈകല്യമുള്ളവർക്ക് ഇപ്പം മറ്റാരെയും ആശ്രയിക്കാതെ വേ ഇന്ന ഇപ്പം വ്യക്തികളെ ഒന്നും ആശ്രയിക്കാതെ ഇണക്കി കൊടുത്തൊരു നല്ലൊരു സംവിധാനം തന്നെയാണ് ഇത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തുവാ പറയേണ്ടത് അവർക്ക് ഒരു താങ്ങും തണലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എ ഇങ്ങനെ ഇതിനെക്കുറിച്ച് നമുക്ക് വിശേഷിപ്പ് വിശേഷണം തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും കാരണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിൽ പോകാനും ഒരു ടാക്സി വിളിച്ചു നേരെ വാതുക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറിപ്പോയാൽ മതി ഒരു വ്യക്തികളെ പോലും ഒന്ന് ഹെൽപ്പ് ചെയ്യ് ഒന്നു ഒന്ന് കൈ പോലും പിടിക്കാനായിട്ട് ആ ആവശ്യക്കാർ വേണ്ട കാരണം അത്ര നമ്മുടെ ഈ ഒരു കാലഘട്ടം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഇപ്പം എന്നാൽ പറയണത് വേണേൽ ഒരു മനുഷ്യനെ പോലും ഇപ്പം രൂപീകരിച്ചെടുക്കാൻ പറ്റുന്ന കാലഘട്ടം ആണല്ലോ ഇത് അപ്പോൾ പിന്നെ ഇതൊക്കെ വലിയ കാര്യവല്ലെന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണം ഇത് എറ്റവും പ്രയോജനപ്പെടട്ടെ ആവശ്യക്കാർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം